വിദ്യാഭ്യാസ സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് ഇന്നത്തെ കാലഘട്ടങ്ങളില് കുട്ടികള് നേരിടുന്ന അല്ലെങ്കില് കുട്ടികള് ആര്ജ്ജിച്ചിരിക്കുന്ന വിദ്യാഭ്യാസം എത്രമാത്രം അവർക്ക് ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ള അറിവ് അതായത് സ്വന്തം അക്ഷരങ്ങള് കൂട്ടി വായിക്കാനായിട്ട് പറ്റുന്നുണ്ടോ അല്ലെങ്കിൽ അക്ഷരങ്ങൾ എഴുതാന് പറ്റുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടി ഇരിക്കുന്നു കാരണം ഇന്ന് ഓള് പാസ് എന്നുള്ള ഒരു ലെവലിലേക്ക് വന്നപ്പോള് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ അതിൻ്റെതാണ് അതിനോടുള്ള അവർ കാണിക്കുന്ന സീര്യസ്നസ്സ് കുറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടി ഇരിക്കുന്നു കാരണം ഇന്ന് പത്താം ക്ലാസ് കഴിയുന്ന കുട്ടികള്ക്ക് പോലും സ്വന്തം പേര് എഴുതാനായിട്ട് ആയാരിക്കും സ്വന്തം വീട്ടു പേരെഴുതാനായിട്ട് ആയാരിക്കും അതിന് അപ്പുറം അവര്ക്ക് എഴുതാനോ വായിക്കാനോ അവര്ക്ക് അറിയാന് അറിയാതെ പോവുന്നുണ്ട് അവർ അപ്പോൾ ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു തകര്ച്ചയുടെ ഒരു കാലഘട്ടത്തിലൂടെ ആയിരുന്നു നമ്മൾ കടന്ന് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ ഇന്ന് സര്ക്കാരും അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളൊക്കെ അതായത് വീട്ടില് വീടുകളിലാണെങ്കിലും ഇന്ന് ഇപ്പം കുട്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു കാലഘട്ടങ്ങളില് നമ്മൾ വളരെ തകര്ച്ചയുടെ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയെങ്കിലും ഇപ്പോഴുള്ള മാതാപിതാക്കള് കൂടുതലും കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളില് ശ്രദ്ധിക്കുന്നുള്ളത് കൊണ്ട് കുറച്ചു കൂടി ഡെവലപ്പ് ആയിട്ട് വരുന്നുണ്ട് എന്ന് ഞാന് വിശ്വസിക്കുന്നു പിന്നെ സര്ക്കാർ ഇപ്പം ഓള് പാസ് എന്ന് പറയുന്ന ഒരു മാനദണ്ഡം എടുത്ത് മാറ്റി എന്നാണ് എനിക്ക് അറിയാന് കഴിയുന്നത് അതുകൊണ്ടു തന്നെ അവരുടെ വിദ്യാഭ്യാസത്തോടുള്ള സമീപനത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തോടുള്ള അവരുടെ സമീപനത്തെ സ്വാധീനം ചെലുത്തും ഇത് സ്വാധീനം ചെലുത്തും എന്ന് തീര്ച്ചയായിട്ടും ഞാന് വിശ്വസിക്കുന്നു കാരണം പഠിക്കണം ജയിക്കണം എന്ന് എല്ലാവര്ക്കുമുണ്ട് എല്ലാവരും ഓള് പാസാണ് നമ്മൾ പഠിച്ചില്ലെങ്കിലും ജയിക്കുമെന്ന ഒരു മനോഭാവം കുട്ടികള്ക്ക് ഉണ്ടായാല് അവർ അതിന് അത്രയും അത്രയും ലാഘവത്തോട് കൂടി മാത്രമേ അവർ വിദ്യാഭ്യാസത്തെ കാണുകയുള്ളു പക്ഷെ തങ്ങൾ പഠിച്ചാല് നല്ല അധ്വാനിച്ചാല് മാത്രമേ ഞങ്ങൾക്ക് വിജയം ലഭിക്കൂ എന്നവര്ക്കു ഒരു ചിന്ത അവരുടെ മനസ്സില് കുഞ്ഞ് മനസ്സില് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് വളരെ ഹാര്ഡ് വര്ക്ക് ചെയ്തിട്ട് ഹാഡ് വര്ക്ക് ചെയ്യാനായിട്ടും അതിന്റെ ഫലം കാണുവാനായിട്ടും ഒക്കെ കുട്ടികള്ക്ക് സാധിക്കും പിന്നെ ഗ്രാമപ്രദേശങ്ങളിലെ വിദ്യാഭ്യാസത്തെ മെച്ചപ്പെടുത്തുവാനായിട്ട് സര്ക്കാരിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാല് കൂടുതലായിട്ടും ഗ്രാമപ്രദേശങ്ങളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഉള്ള കുട്ടികളുടെ നിലവാരം മനസിലാക്കുക കാരണം അവര്ക്ക് അവരുടെ മാതാപിതാക്കള്ക്ക് ചിലപ്പം മാതാപിതാക്കള്ക്ക് അധികം വിദ്യാഭ്യാസം കാണുകയില്ല നഗരപ്രദേശങ്ങളിൽ വസിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കള്ക്ക് ആയിരിക്കും കൂടുതല് നല്ല വിദ്യാഭ്യാസം അപ്പം അവര്ക്ക് അവരുടെ മക്കളെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ടും പഠിപ്പിക്കാനായിട്ടും ഒക്കെ ശ്രദ്ധിക്കും ശ്രദ്ധിക്കാനും ഒക്കെ സാധിക്കും അപ്പം ഗ്രാമപ്രദേശങ്ങളിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നവർ വിദ്യാലയങ്ങളില് തന്നെ കുട്ടികള്ക്ക് മാക്സിമം പ്രൊവൈഡ് ചെയ്യാനായിട്ട് മാക്സിമം അവരുടെ അറിവുകൾ വര്ദ്ധിപ്പിക്കുക അവരുടെ അവ എക്സ്പോസ് ചെയ്യാനായിട്ട് കുട്ടികളുടെ അറിവുകളും കഴിവും മാക്സിമം അവരുടെ സ്കൂളികളില് തന്നെ എക്സ്പോസ് ചെയ്യാനായിട്ടും എക്സ്പ്രസ് ചെയ്യാനായിട്ടും ഉള്ള അവസരങ്ങൾ കൊടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടവൾ അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിലും കൂടുതൽ ഫോക്കസ് ചെയ്യണം പിന്നെ പിന്നെ അത്യാധുനികമായ സംവിധാനങ്ങൾ ഇവർ കണ്ടിരിക്കണം എന്നില്ല പക്ഷെ തുടര് വിദ്യാഭ്യാസത്തിനായി ഗ്രാമപ്രദേശങ്ങളില് നിന്നും നഗരപ്രദേശങ്ങളിലേക്ക് പോവുമ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ഇവർ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇവരുടെ മാതാപിതാക്കള്ക്ക് ചിലപ്പോള് ഇങ്ങനെയുള്ള അത്യാധുനിക ആധുനികമായ സംവിധാനങ്ങള് വീട്ടിൽ സജ്ജീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കില് അതിനുള്ള സാധ്യതകള് അത് പരിചയപ്പെടാനും അത് കൈകാര്യം ചെയ്യാനായിട്ടുമുള്ള സാധ്യതകള് വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് തന്നെ പ്രൊവൈഡ് ചെയ്യുക ചെയ്യണം അതിനുള്ള സാമ്പത്തിക സൗകര്യങ്ങള് സര്ക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്